ജില്ലയില് പരിസ്ഥിതി സംരംഭങ്ങൾന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇപ്പൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാരും പരിസ്ഥിതി സംരംഭങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും പക്ഷേ ഇപ്പത്തെ കാലത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് എല്ലാരും മരം വെട്ടിക്കളി അവിടെ പുതിയ പുതിയ ബിൽഡിംഗ് കെട്ടാ അതായത് ഫോറസ്റ്റുകളൊക്കെ വളരെ കുറവാണ് അപ്പംന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് വളരെ പ്രശ്നാണെന്ന് ആൾക്കാര് ചിന്തിക്കുന്നില്ല അതായത് മരങ്ങൾ മരങ്ങള് വെട്ടും മുൻപേ നമുക്ക് പൈസ കിട്ടും അപ്പം നമ്മള് നമ്മളെ വീട്ടിൻ്റെ കാര്യം നോക്കും അങ്ങനത്തെ പ്രശ്നങ്ങള് പക്ഷേ ഇതെല്ലാർക്കും അത് വളരെ പ്രശ്നാണെന്ന് ആരും ചിന്തിക്കുന്നില്ല ഇപ്പം അങ്ങനെ പിന്നെ അതുപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉപയോഗം ഇപ്പോൾ ഒരുപാട് അതായത് കുറയ്ക്കാൻ എല്ലാരും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ പ്ലാസ്റ്റിക് മേടിക്കാനിപ്പോൾ അതായത് ഈ സംരംഭത്തിൻ്റെ ഇത് മുന്നോടിയായിട്ട് തന്നെയാണ് പ്ലാസ്റ്റിക് മേടിക്കാൻ കുടുംബശ്രീയില് ഇങ്ങനെ ആൾക്കാര് വന്നിട്ടിപ്പം ഓരോ പഞ്ചായത്തുകളിലും വീട്ടില് പ്ലാസ്റ്റിക് മേടിക്കുന്നുണ്ട് അതൊക്കെ ഒരു കണക്കിന് നല്ലതാണ് പക്ഷേ ഈ പ്ലാസ്റ്റിക് മേടിക്കുന്ന അതായത് ഈ ഒരു അവസരം വരുത്തുന്നത് ഗവൺമെൻറ്റ് തന്നെയാണല്ലോ ഈ പ്ലാസ്റ്റിക് നിരോധിക്കാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് പെറുക്കാൻ വരേണ്ട ഒരാവശ്യവും വരുന്നില്ല പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പ്ലാസ്റ്റിക് അതായത് ചിലരെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഒന്നും കൊടുക്കൂല അത് വീട്ടില് വെച്ചിട്ട് ഒരുമിച്ചു കൂട്ടിയിട്ട് കത്തിക്കും അത് നമ്മുടെ വായു മലിനീകരണത്തിനും അത് വായുമലിനീകരണം നടത്തും അതുകൊണ്ടു നമ്മുടെ ശ്വസന വ്യവസ്ഥയ്ക്കും ഒക്കെ പല പ്രശ്നങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവും